ഇരുപത്തിയേഴ് ഒമ്പത് രണ്ടായിരത്തി ഒന്ന് ഇരുപത് പത്ത് രണ്ടായിരത്തി അഞ്ച് പതിനാറ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പതിനാറ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തൊമ്പത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച്